ഹലോ ഹലോ കേക്ക് ആ ഞാൻ ആദിത്യ ആണ് ഞാൻ ഈ കോളേജിലെ ഒര് സ്റ്റുഡൻറ്റാണ് എനിക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഞാന് സോഷ്യൽ വർക്കിന് പഠിക്കുവാണ് ആ എനിക്ക് അച്ഛന് അച്ഛന് ട്രാൻസ്ഫർ ആയിരുന്നു അപ്പോൾ ഇവിടന്ന് ഞങ്ങള് ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പം അവിടുത്തെ ലയോളക്കോളേജില് അഡ്മിഷന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇല്ല മാം ഇല്ല ഇല്ല ഇല്ല നല്ല കോളേജാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുവില്ല അതെ അച്ഛനിപ്പോൾ റീസൻറ്റായിട്ടാണറിഞ്ഞത് അച്ഛൻ മാർക്കറ്റിങ് മാനേജറാണ് ഹോട്ടൽ ഫീൽഡിലാണ് അപ്പോൾ അവർക്കിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റങ്ങള് വരുന്നത് കൊണ്ട് ഇപ്പോൾ മാറി ചെന്നൈയിലോട്ടാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങള് മൊത്തത്തില് ഫാമിലിയോട് കൂടിത്തന്നെ ചെന്നൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പം ഇവിടെ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കവടെ നേരത്തെ ക്ലാസസ്സ്സ് അറ്റൻറ്റെ ചെയ്ത് തുടങ്ങാമായിരുന്നു ആ അവിടെ പറഞ്ഞായിരുന്നു അവിടെ സംസാരിച്ചിരുന്നു അപ്പം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എത്ര പെട്ടെന്ന് കിട്ടുമോ അത്രയും പെട്ടെന്നെനിക്ക് ക്ലാസസ് ജോയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അതെ പക്ഷേ ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിന്നിട്ടില്ല അപ്പോൾ അമ്മേനോടൊക്കെ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു എന്തായാലും ചെന്നൈക്ക് പോകുവല്ലേ അവിടേയും കോളേജുണ്ട് അവിടേയും സോഷ്യൽ വർക്ക് പഠിക്കാം അപ്പം അവിടങ്ങ് പഠിക്കാൻ പറഞ്ഞു ആ എ എത്ര സമയം എടുക്കും മാം ടീ സി കിട്ടാനായിട്ട് മൂന്ന് ദിവസം അപ്പം ഞാന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഓഫീസിലോട്ടൊന്ന് വന്ന് കഴിഞ്ഞാലെനിക്ക് എന്തായി എന്നുള്ള അപ്ഡേറ്ററിയാൻ കഴിയില്ലെ ഓക്കെ മാം അപ്പം ഞാന് മൂന്ന് ദിവസം കഴിഞ്ഞ് കോളേജിലേക്ക് വരാം പേരൻറ്റ്സാരെങ്കിലും കൂടെ വരണമെന്നുണ്ടോ

ആ ഓക്കെ മാം ഓക്കെ ആ ഓക്കെ താങ്ക്യു മാം താങ്ക്യു